ഹലോ ആ ചേട്ടാ പോന്നായിരുന്നോ ആ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് അല്ല നിങ്ങൾ കോഴിക്കോട് ബീച്ചിൻ്റെ അങ്ങോട്ട് വന്നാൽ മതി ആ ഇല്ല എനിക്ക് ഇവിടെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഞാൻ ബീച്ചിൻ്റെ അങ്ങോട്ട് ഒന്ന് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കറക്റ്റ് അങ്ങോട്ട് വന്നാൽ മതി ആ ഓക്കേ ഇറങ്ങുന്നുള്ളുവല്ലേ ആ ഓക്കേ അപ്പോൾ ഞാൻ ബീച്ചിൻ്റെ അവിടെ എവിടെയെങ്കിലും നിയർ വന്ന് നിൽക്കാം അപ്പോൾ ചേട്ടൻ ഒരു പത്ത് പത്തര ആകുമ്പോഴേക്കും അവിടെ എത്തിയാൽ മതി ഞാനപ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ട് അതിന് പോയിട്ട് പെട്ടെന്ന് ഞാൻ ഇറങ്ങി വരാം എന്നിട്ട് നമുക്ക് എറണാകുളത്തേക്കാണ് പോകേണ്ടത് ആ പെയ്മെൻറ് കാര്യങ്ങളൊക്കെ ഞാൻ ഓഫീസിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ചേട്ടൻ വരികയാണെങ്കിൽ ഓക്കേ നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം ഓക്കെ എന്തായാലും ചേട്ടൻ ബീച്ചിൻ്റെ അങ്ങോട്ട് വന്നാൽ മതി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം ആ ഓക്കേ ഓക്കേ ആ ഓക്കെ എത്താൻ ഒരു അഞ്ചു മിനിറ്റ് മുമ്പ് വിളിച്ചാൽ മതി ഞാൻ പുറത്തിറങ്ങി നിൽക്കാം ആ ആ ശരി ആയിക്കോട്ടെ ഓക്കേ